മലയാള ഭാഷയ്ക്ക് മാറ്റങ്ങളുണ്ടാകുന്ന രീതി ഓരോ ജില്ലക്കാരുടേയും സംസാരരീതി അനുസരിച്ച് മലയാള ഭാഷയ്ക്ക് മലയാള ഭാഷയുടെ സ്ലാങ്ങുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അതിപ്പോൾ ഇംഗ്ലിഷിലാണെങ്കിപ്പോലും ബ്രിട്ടീഷ് ആക്സെൻറ് അമേരിക്കൻ ആക്സെൻറ് അതൊക്കെ അതില് വ്യത്യാസം വരുന്നത് പോലെ തന്നെ നമ്മുടെ മലയാള ഭാഷയിലും ഓരോ ജില്ലകളിലുള്ള ആൾക്കാര് സംസാരിക്കുന്ന രീതിയിലും മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണ് അപ്പോൾ ആലപ്പുഴയിൽ ആലപ്പുഴയിൽത്തന്നെ പല ടൗണുകളിലും സിറ്റികളിലും ഗ്രാമങ്ങളിലും താമസിക്കുന്ന പല ആൾക്കാരുണ്ട് അവർക്ക് ചിലപ്പോൾ ഈ അച്ചടി ഭാഷ കിട്ടിയെന്നും വരില്ല അപ്പോൾ നമ്മുടെ മലയാള ഭാഷയേ മോശമായി ചിത്രീകരിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാം പക്ഷേ ഇന്ന് എന്ന്തന്നെ ഇരുന്നാലും ഓരോ ജില്ലക്കാരുടേയും സംസാര രീതികളും വ്യത്യാസം വന്നിട്ടുണ്ട് അത് വളരേ നമ്മൾക്ക് ബാക്കിയുള്ള ജില്ലക്കാർക്ക് ചിലപ്പോൾ അവിടെ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലായി എന്ന് വരില്ല മലയാളം തന്നെയാണ് മനസിലാകും സംസാരിക്കുന്നതെങ്കിൽക്കൂടിയും അവരുടെ പ്രയോഗങ്ങൾ അവരെ സംസാരിക്കുന്ന രീതി അവർ സംസാരിക്കാനുപയോഗിക്കുന്ന രീതി അത് വളരെ വ്യത്യാസമുണ്ട് അത് നമ്മൾക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും